എൻ്റെ മതം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഹിന്ദു മതമാണ് ഹിന്ദു മതം എന്ന്പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നമ്മൾ ഓരോ ആചാരങ്ങൾ ഒക്കെ ചെയ്യില്ലേ അതേപോലെയുള്ള ഒരു മതമാണ് ഹിന്ദു മതം അതേപോലെ ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിംസ് ഉണ്ട് എൻ്റെ മതം ഹിന്ദുവാണ് ചരിത്ര പ്രധനമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടുള്ളത് കൂടുതലും ഹിന്ദുക്കളാണ് ഇന്ത്യയിൽ കൂടുതൽ ഹിന്ദുക്കൾ ആയിട്ടാണ് കാണപ്പെടുന്നത് ബാക്കി ഉള്ളവരൊക്കെ ഓരോ സംസ്ഥാനങ്ങളും അല്ലെങ്കില് ഓരോ രാജ്യങ്ങളായിട്ട് കടന്ന് കയറിയവരായിട്ടാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് എങ്ങനെയാണ് എന്ന് കറക്റ്റ് അറിയില്ല പക്ഷെ ഇങ്ങനെ ഒക്കെയാണ് പറയപ്പെടുന്നത് ഹിന്ദുനാണ് ഏറ്റവും കൂടുതൽ ആചാരങ്ങൾ ആയിട്ടുള്ളത് അതായത് ഇപ്പോൾ നമ്മള് ഒരു കല്യാണം നടത്തുവാണെങ്കിലും ഓരോ ആചാരങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ടാണ് നടത്തുക ഇപ്പം താലികെട്ട് അങ്ങനെ ഓരോ ആചാരങ്ങളുണ്ട് ഇപ്പോൾ ഓരോ മതസ്ഥരും മതത്തിനുള്ളിൽ ജാതികൾ ഉണ്ട് ജാതികളിൽ പലതരം കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ചെട്ടി പിന്നെ വിശ്വകർമ്മ അങ്ങനെ പലതരം ആചാരങ്ങളൊക്കെ ഉണ്ട് ഓരോ ആചാരങ്ങളും വേറെ വേറെ ആയിട്ടാണ് കാണുന്നത് പിന്നെ ചരിത്രം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഹിന്ദു മതം തന്നെ ഒരു ചരിത്രമാണ് അതായത് ഹിന്ദു മതത്തിലുള്ളവരെയാണ് കൂടുതലും ചരിത്രങ്ങളിൽ ഇടം നേടിട്ടുള്ളത് പിന്നെ ഈ മതത്തെ പറ്റി കുറേ കലാപങ്ങളും പലതും നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഇപ്പോഴും നടക്കുന്നുമുണ്ട് മത അതായത് ഇപ്പോൾ ഉള്ളവരും ഈ മതത്തെ ചൊല്ലിട്ട് അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടൊക്കെയായിട്ടാണ് നടക്കുന്നത്